പണ്ട് പണ്ട് എടുത്ത പ്രിന്റുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിലിം ക്യാമറകളിൽ എടുത്ത പ്രിന്റുകൾ കുറച്ച് കയ്യിൽ ഉണ്ട് അത് പറഞ്ഞാൽ അന്നത്തെ ഒരു ഫിലിം ക്യാമറയിൽ ഓരോ ഫിലിമും റോള് ഓരോ ഫിലിം റോളില് ഓടിയത് ഓരോ ക്ലിക്കിന് ശേഷവും നമ്മള് ഫിലിം വീണ്ടും റോൾ ചെയ്ത് റോള് ചെയ്തു എടുക്കുക എന്ന് പറയുന്നത് ആ ഒരു ക്യാമറകളോട് തന്നെ ഒരു നല്ലൊരു വൈകാരിക ബന്ധം ആയിരുന്നു ആ ഒരു വിൻഡേജ് ക്യാമറകൾ എന്ന് പറയുമ്പോൾ അതിൻറെതായ ആ ഒരു ഒരു പ്രൗഢി നിലനിർത്തിയിരുന്നു ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറ ഒട്ടും മോശമാണെന്നല്ല നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ തരുന്നതും നിറയെ ഒരു ഒരുപാട് ഫോട്ടോസും മറ്റേത് ഓരോ റോൾ തീരുമ്പോഴും പുതിയ പുതിയ റോൾ ഇടണം ചിലവ് കൂടുതലാണ് പക്ഷേ ചിലവ് കുറഞ്ഞ നിറയെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറ തന്നെയാണ് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത് എങ്കിലും പഴയകാലത്ത് ആ ഒരു ആ ഒരു ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ഒരു നല്ല നീണ്ടുനിക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയായിരുന്നു നമ്മൾ ഫിലിം ഇട്ട് ഫോട്ടോയെടുത്ത് പിന്നെ ആ ഫിലിം വാഷ് ചെയ്യാൻ കൊണ്ടുപോയി അതിനൊരു പ്രിന്റഡ് രൂപത്തിലോട്ട് മാറ്റി അങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയ നമുക്ക് അങ്ങനെ അത്രയും ഒരു പ്രോസസിലൂടെ കടന്നുപോയ ഒരു ഫോട്ടോ കിട്ടുമ്പോൾ ആ ഒരു ഫോട്ടോനോട് നമുക്ക് പ്രത്യേക തരം ഒരു ഒരു ബന്ധം തന്നെ തോന്നും പക്ഷേ ഇപ്പോഴത്തെ ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മള് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഫോട്ടോ കാണാൻ പറ്റും എടുത്ത ഫോട്ടോ അപ്പോൾ തന്നെ അതിൻറെ സ്ക്രീനിലൂടെ കാണാൻ പറ്റും പ്രിൻററിലെ ആ ആ നിമിഷം തന്നെ നമുക്കത് പ്രിൻറ് ചെയ്തു ലഭ്യമാവുകയും ചെയ്യും അത്രയും എളുപ്പം നമുക്ക് ലഭിക്കാൻ തുടങ്ങി